ഹലോ ആ എനക്ക്േ എന്നെ രജിസ്റ്റർ ചെയ്യുന്ന ആർടിി ഓഫീസല്ലേ ആ ഇനി ആടെ സെക്കൻഡ് ഹാൻഡ് കാർ എടുത്താരരുന്നേ അപ്പ അതെനിക്ക് രജിസ്റ്റർ ചെയ്യണം ആ ഓൺലൈനി രജിസ്റ്റർ ചെയ്യണാരരുന്നേ ആ എനിക്ക് സ്ലോട്ട് ബുക്കെയ്യുന്നതിനെക്കുറിച്ചൊരു കറക്റ്റ് ധാരണ ഇല്ലേ എനിക്ക് സഹായ ആവശ്യമുണ്ടായിരുന്നേ ആ വാഹന രജിസ്ട്രേഷൻ നമ്പറ് തരാവേ ആ എന്തെല്ലാം ഡോക്യൂമെൻറ്സ ആണ്ട് വേണോന്നൊന്ന് പറഞ്ഞേക്കണേ ആ അപ്പ പരിവാഹൻ സേവാ സപ്പോർട്ട് ടീമിന് ഒരു മെയില അയക്കണോ ആ അങ്ങനെ മെയിലയച്ചാല് എനിക്ക് ബാക്കി സ്ലോട്ട് ബുക്കെയ്യുന്ന ഒരു സേവനം കിട്ടത്തുള്ളല്ലേ ആ ഒടന്നെ ചെയ്യാവെ അല്ല എനിക്ക് സെക്കൻഡ് ഹാൻഡ് കാറ് വാങ്ങിയിട്ട് പിന്നെ രജിസ്റ്റർ ചെയ്യായിരുന്നിട്ട് കാര്യൊന്നുില്ല ആ ഹാ എന്നക്ക് സഹായം കിട്ടും അവിടെ വന്നാ മതിയോ ആ നാളെ വന്നാല് റെഡിയ ആാക്കി കിട്ടുവല്ലോ അല്ലേ ആ എനിക്ക് സ്ലോട്ട് ബുക്ക ചെയ്യാന് പെട്ടെന്ന് പെട്ടെന്ന് അത് ചെയ്യണ്ട കാര്യം ഇല്ലേ അപ്പ പെട്ട അങ്ങനെ ചെയ്യണ്ട കൊണ്ട് താമസം വരും അതെല്ലും നല്ലതല്ലേ നിങ്ങള് ചെയ്തുരുന്നു ആ അപ്പം മെയിയില അയച്ചിട്ടേക്ക ബാക്കി ഡീറ്റെയിൽസ് എനിക്ക് മെല് തിരിച്ചയച്ചാ മതിയ ഓക്കെ ശെരി താങ്ക്യൂ